ഹലോ ആ ഡോക്ടർ അല്ലേ ആ ഞാൻ എനിക്ക് ചെറിയ പനിയും തലവേദനയും ഒക്കെ ഉണ്ടായിരുന്നേ രണ്ട് ദിവസമേ ആയുള്ളൂ മേഡം ആ ഞാൻ കഴിഞ്ഞ ദിവസം വാ ബൈക്കിന് വന്നപ്പോൾ ചെറുതായിട്ട് മഴ നനഞ്ഞിട്ടുണ്ടായിരുന്നേ ഭയങ്കര ജലദോഷവും തുമ്മലൊക്കെ ഇപ്പോൾ തീരെ കുറയുന്നില്ല അലർജീൻ്റെ ആണോ എന്ന് അറിയത്തില്ല മഴ നനഞ്ഞ് കഴിഞ്ഞാലൊക്കെയാണ് പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം മൂക്ക് അടച്ച് അടഞ്ഞ് പോവുവാണ് പിന്നെ ഭയങ്കര തുമ്മൽ ഒക്കെയാണ് ആ സാധാരണ പച്ചവെള്ളം ആണ് ഇപ്പോൾ ഇത് ജലദോഷം വന്നതിൽ പിന്നെയാണ് ചൂട് വെള്ളം കുടിക്കാൻ തുടങ്ങിയത് ആ ഓക്കെ മേഡം പാരസെറ്റാമോൾ ഇതുവരെ കഴിച്ചില്ല ഈ പാരസെറ്റാമോൾ കഴിച്ചാൽ മതിയാവുമോ ആ പനി ഉണ്ട് ആ ഓക്കെ മേഡം ആ ഓ ആയിക്കോട്ടെ മേഡം